ആ ഡോക്ടർ ഞാൻ റസീന പിന്നെ എന്താ അറീല്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് തലവേദനയും പനിയൊക്കെ ആയിട്ട് വിളിച്ചതാണ് അപ്പോൾ അതിൻ്റെ അതൊന്ന് കാണിക്കാൻ വേണ്ടീട്ട് മഴ ആ മഴ നനഞ്ഞിട്ടില്ല പക്ഷേ എന്താന്ന് അറീല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ തലകറങ്ങുന്നും ഉണ്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ട് ആ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷവർമ കഴിച്ചിട്ട് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി കഴിച്ചിട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ ഇല്ല വേറെ ആർക്കും കുഴപ്പമില്ല അതെ മോനിക്ക് ചെറുതായിട്ടൊരു പനി ഉണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പം ഒന്നുമില്ല വേറെ ആർക്കും കുഴപ്പം ഒന്നുമില്ല ഞാൻ പനിക്ക് പാരസെറ്റാമോൾ കയ്യിലുള്ളത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ പാരസെറ്റമോള് ഞാൻ രണ്ട് ദിവസം കഴിച്ചു പക്ഷേ കുറയുന്നില്ല

ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഞാൻ ക്ലിനിക്കിൽ വന്ന് കാണിക്കാം എന്നാൽ

ആ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ അവനേയും കൊണ്ട് വരാം ആ ഓക്കെ ഡോക്ടർ ബുക്ക് ചെയ്തോ ആ റസീന ആ ഓക്കെ